ഹലോ ഇത് സ്വിഗ്ഗിയല്ലേ നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് തന്ന സ്ഥലത്തുനിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഞാൻ ഓഡ്റ് ചെയ്തത് സദ്യയായിരുന്നു സദ്യയിൽ സദ്യയിൽ എത്ര വിഭവങ്ങളുണ്ടാവും ഇതിലാകെ മൂന്നോ നാലോ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ ഒന്നും ഇല്ല ഉള്ളത് തന്നെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിയലൊക്കെ നമ്മൾ അവിയൽ വയ്ക്കുന്ന പോലെയൊന്നും അല്ല ഇതെന്ത് അവിയലാണ് ഇതിൽ നിങ്ങളെന്ത് ഏത് പച്ചക്കറിയാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് സദ്യയിലെ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും അവിയലിൽ ഉപയോഗിക്കും പക്ഷെ അതൊന്നും ഇല്ല അവിയലിൽ പായസമാണെങ്കിൽ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പാലാണോ അതിൽ പഞ്ചസാരയാണോ ഉപ്പാണോ കൂടുതലുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പായസമാണിത് ഇതെങ്ങനെ ഞങ്ങൾ ആള്കൾക്ക് കൊടുക്കുക ഇപ്പം ഈ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് നാല് സെറ്റ് അല്ലേ ഓഡ്റ് ചെയ്തിട്ടുള്ളത് ഇത് എൻ്റെ വീട്ടിൽ ആൾക്കാർ അതിഥികൾ വന്നപ്പം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൈയ്യിൽനിന്ന് ഓഡ്റ് ചെയ്തത് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഓഡ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തരേണ്ടേ അത് ഞാൻ എല്ലാ ഇതിന് മുഴുവനായിട്ടുള്ള പൈസയും അടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ്സ് ഒരു സഹകരണം നിങ്ങൾ ചെയ്യേണ്ടതല്ലേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്